ഹലോ ഗായിസ് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ ഒരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നു ഞാൻ ഒരു ഓൺലൈനിലൂടെ ഒരു ഇയർബഡ് വാങ്ങി അത് നല്ല മികച്ച പെർഫോമൻസ് ആണ് അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് അതിൻ്റെ വോയിസ് കോൾ ചെയ്യാനായിട്ടുള്ള ബാക്കപ്പ് എല്ലാം മികച്ചതാണ് വളരെ നല്ല ഭംഗിയും യൂസർ ഫ്രണ്ട്ലിയും കുറേ നല്ല അധികകാലം ഫീച്ചേഴ്സുമുള്ള ഈ ഇയർബഡ് കാഴ്ചയിൽ തന്നെ നല്ല പ്രോഡക്റ്റ് ആണ് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ് ഇത് ഇതിന് നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട് മറ്റു മറ്റു ഗുണങ്ങളും എല്ലാമുണ്ട് പെട്ടെന്ന് രണ്ട് മൾട്ടിപ്പിൾ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഫീച്ചറും ഇതിൻ്റെ അകത്തുണ്ട് ബ്ലൂടൂത്ത് ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള ബ്ലൂടൂത്ത് ആണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മികച്ച രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് കൊണ്ടൊണ് ഡെലിവറി തരുന്നതും അതും നല്ല പാക്ക് ആണ് ഡെലിവറി ചെയ്തപ്പോൾ നല്ല ഒരു രീതിയിലുള്ള പാക്കിങ്ങ് ആയിരുന്നു നല്ല പ്രൊട്ടക്റ്റഡ് ആണ് ഡാമേജസ് ഒന്നും വരാത്ത രീതിയിൽ നല്ല പാക്കേജ് ആണ് എല്ലാം കൊണ്ടും മികച്ചതാണ് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ് ഗായിസ്